എൻ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിരിക്കുന്ന മലയാള ഭാഷയിലെ പുരാണങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പല വാക്കുകളുമാണ് നമ്മൾ പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലെ പല കഥാപാത്രങ്ങളുടെയും പേര് വളരെയധികം നമ്മളെ രസകരവും എന്താ നമ്മളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളാണ് ഉദാഹരണത്തിന് പുരാണങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് അശ്വത്ഥാമാവ് വിശ്വാമിത്രൻ അഗ്നിഹോത്രി ഇങ്ങനെ തുടങ്ങിയ കുറെയധികം പേരുകളിലുള്ള ആൾക്കാർ അതായത് മലയാള ഭാഷയിൽ നമ്മളങ്ങനെ പൊതുവേ ആധുനിക മലയാള ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ചധികം പദ പ്രയോഗങ്ങൾ കാണാൻ പറ്റും ത്രിവിക്രമൻ തുടങ്ങിയ പദം അതുപോലെ തന്നെയാണ് ഘടോത്ക്കജൻ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പഴ പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് ആധുനികകാലത്തിലുള്ള കുട്ടികൾക്കത്ര പരിചിതമാണെന്നെനിക്ക് തോന്നുന്നില്ല എങ്കിലും ഇതുപോലെയുള്ള ഒരുപാട് നമ്മൾ പുരാണങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാക്കുകൾ കാണാൻ സാധിക്കും അതിലെ പദപ്രയോഗങ്ങളും പഴയ കവികൾ പഴയ രചനകൾ നമുക്ക് നോക്കിയാലും ആ പ പഴയ എഴുത്തുകൾ നോക്കിയാൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ മലയാള ഭാഷയുടെ ഒരു ഉത്ഭവത്തെക്കുറിച്ചും സംസ്കൃതമായി മലയാള ഭാഷയ്ക്കുള്ള ബന്ധത്തെപ്പറ്റിയും അത് പഴയ ആര്യ ദ്രാവിഡ കാലത്ത് ഉപയോഗിച്ചിരുന്ന മലയാളഭാഷയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ പുരാണങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും